ഉള്നാടിലുള്ളവർ ഇപ്പോൾ കൂടുതലും കണ്ടത്തിൽക്കൂടി മഴയൊക്കെ പെയ്യുമ്പോള് ഫുട്ബോള് കളി അങ്ങനെ അങ്ങനെ ക്രിക്കറ്റ് ഷട്ടില് ബാറ്റ് കോക്ക് അങ്ങനെ കക്ക് എന്നു പറഞ്ഞു കളിച്ചിട്ടാണ് അവര് സന്തോഷങ്ങളൊക്കെ നേടുന്നത് അതേപോലെ അവർ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോള് കൂട്ടത്തോടെ പോയി കളി ഗെയിമുകളി അങ്ങനെക്കെയാണ് ഇപ്പം കൂടുതലും ഉള്ളത് ഇപ്പോ ആണെങ്കിൽ സ്കൂള് പൂട്ടിയ സമയം കൂടിയാണ് ഇപ്പോൾ മുന്നത്തെ കൂട്ടുകാരന്മാരും എല്ലാവരും ഉണ്ടാവും നാട്ടിൽത്തന്നെ കുറെപേര് ഉണ്ടാവും അറിയാത്തവരും എല്ലാവരുമായിട്ടുള്ളവരും എല്ലാവരും കൂടിയിട്ട് ഇപ്പം മൂന്ന് മാസമായിട്ട് എല്ലാവരും നല്ല ഗെയിമിങ്ങിൽ ആയിരിക്കും കണ്ടത്തില്ക്കൂടി മഴയത്തും വെയിലത്തും അതേപോലെ ഒന്നിച്ച് കറങ്ങാന് പോക്കും അങ്ങനെയൊക്കെ ആണ് കൂടുതല് പേരും പ്രയോജനപ്പെടുത്തുന്നത് കൂടുതല് പേരും അങ്ങനെയാണ് സന്തോഷിച്ച് നടന്നത് ഈ മൂന്നു മാസമായിട്ട് കൂടുതല് പേരും അങ്ങെനെയായിരിക്കും സന്തോഷിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ ആണ് എല്ലാവരും ഞാന് എനിക്ക് ഇങ്ങനെ പറയും പണ്ടത്തെ കാര്യങ്ങളാണ് ഓര്ക്കുന്നത് പണ്ട് വരമ്പത്തുകൂടി ചളിയിൽക്കൂടി പോയി കളിച്ചതും വീണതും എല്ലാമാണ് എനിക്ക് ഓര്മ്മ ഉണ്ടാകുന്നത് അടി ഉണ്ടാക്കലും എല്ലാമാണ് ഇപ്പോൾ എനിക്ക് ഓര്മ്മ വന്നു കൊണ്ടേയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത്